പരസ്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ അധികം സ്വാധിനം നൽകുന്നുണ്ട് അതേ പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഒത്തിരി അധികം സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെടാറുണ്ട് പരസ്യങ്ങളിലൂടെ നമ്മൾ ഒരു സാധനത്തെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു അങ്ങനെ നമ്മൾ പരസ്യങ്ങളിൽ നമ്മളിൽ ഒത്തിരി അധികം ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരോ പരസ്യങ്ങളിൽ കാണുന്ന സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ആകർഷകമായി നോക്കാറുണ്ട് തീർച്ചയായിട്ടും പരസ്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എന്താ മറച്ചു പിടിക്കാൻ സാധിക്കാത്ത ഒരു ഒരു പങ്ക് തന്നെ ഉണ്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും നമ്മൾ ഇപ്പോൾ രാവിലെ എണീറ്റ് തേക്കുന്ന പേസ്റ്റ് മുതൽ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മസാല വരെ ഇപ്പം പരസ്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ നമ്മൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ അതും ഭയങ്കര ആകർഷകമായിട്ട് സൃഷ്ടിപരമായ രീതിയിലാണ് നമ്മുടെ പരസ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പരസ്യങ്ങളിലേക്ക് വീണ് പോകണ്കൾ വളരെ അധികം കൂടുതലാണ് കാരണം ഞാൻ ആകർഷകമായിട്ട് ഒരു പരസ്യം കണ്ട് ഞാൻ ഒരു പേസ്റ്റിൻ്റെ പരസ്യം തന്നെ പറയുകയാണെങ്കിൽ ആ ഒ ഒരു അടിപൊളി ഡാൻസ് പാട്ടും എന്നിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു രീതിയിലാണ് പരസ്യം തുടങ്ങുന്നത് പിന്നെ ഞാൻ വിചാരിച്ച് ഇത് വേറെ എന്തിൻ്റെയോ പരസ്യം വല്ല ഡാൻസ്സിൻ്റെ അങ്ങനെ എന്തേലും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെയോ അങ്ങനെ എന്തേലും ഒക്കെ പരസ്യം ആയിരിക്കും എന്ന് പക്ഷേ ഇത് കണ്ട് അവസാനമാണ് എനിക്ക് മനസിലാകുന്നത് ഇത് കേവലം രാവിലെ പല്ലു തേക്കുന്ന ഒരു പേസ്റ്റിൻ്റെ പരസ്യമാണെന്ന് ഞാൻ വാ ഭയകരമായ രീതിയിൽ ഞാൻ ഞെട്ടി പോയി കാരണം അത്രയധികം സൃഷ്ടിപരമായിട്ടാണ് അവർ ആ ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതും ആ പരസ്യം ആ പരസ്യം കൊണ്ട് തന്നെ ആ പേസ്റ്റിന് നല്ല രീതിയിൽ ഉള്ള ഒരു അതിൻ്റെ ആ ഒരു ഒരു ആ ഒരു റേറ്റ് എന്തായാലും കൂടും കാരണം ആ ഒരു പരസ്യം കണ്ടുകഴിയുമ്പോൾ തന്നെ എല്ലാവരും ആ എന്ന ഇതൊന്ന് വാങ്ങി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു പരസ്യമായിരുന്നു അത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ പരസ്യങ്ങൾക്ക് ഇപ്പോൾ വളരെ അധികം സ്വാധീന ശക്തിയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമൂഹത്തിൽ വളരെ അധികം സ്വാധിന ശക്തി ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആ ഒരു രീതിയിലുള്ള പങ്ക് തന്നെ ഇപ്പോൾ പരസ്യങ്ങൾ വഹിക്കാറുണ്ട്